ആ വെരി ഗുഡ് മോർണിംഗ് ആരാണ് സംസാരിക്കുന്നത്

ആ അതെ നമുക്ക് ബോട്ട് സർവീസ് നമുക്ക് ആലപ്പുഴ പുന്നമട കായലിൻറെ ഫിനിഷിംഗ് പോയിൻറ് ഉണ്ടേ അവിടുന്നാണ് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എല്ലാ ദിവസവും ഇല്ല കേട്ടോ ഞായറായ്ച്ച ഉണ്ട് പിന്നെ ബുധൻ വെള്ളി ശനി അങ്ങനെയൊക്കെ അപ്പം ആ ഞായറാഴ്ച്ച ഉണ്ട് ആ അത് ആഹാ അത് സ്റ്റാർട്ടിംഗ് ടൈം ഉണ്ട് ഒമ്പതരയ്ക്കാണത് ഫിനി ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒമ്പതരയ്ക്ക് നിങ്ങൾ അവിടെ ഒമ്പത് മണിക്ക് പ്രെസൻറ് ആയിരിക്കണം അത് ഫാമിലി ആയിട്ടാണോ ഫാമിലി ആയിട്ട് എത്ര പേർ കാണും അഞ്ച് പേർക്ക് പറ്റിയ ബോട്ട് നമുക്ക് എ സി ഫിറ്റിങ്ങ് ഉള്ള ബോട്ട് ഉണ്ട് അത് ഡബിൾ ബെഡഡ് ഉണ്ട് ഫോർ ബെഡഡ് ഉണ്ട് എ സി ഉള്ള വിതൗട്ട് എ സി അതുപോലെ തന്നെ ഡബിൾ ബെഡഡ് ഫോർ ബെഡഡ് ഒക്കെ ഉണ്ട് പിന്നെ ഡബിൾ ഡെക്കർ അത് മുകളിലിരുന്ന് നല്ല വ്യൂസ് ഒക്കെ കാണാം അങ്ങനത്തെ ബോട്ട് അത് ഇത്തിരി കോസ് ലക്ഷറീസ് ആണേ അപ്പം അത് അതിന് അത് അതിനൊരു ട്വൻറി തൗസൻഡ് പെർ ഡേ ആവും ആ അത് നി ആ ഹാ ആ ഞായറാഴ്ച്ചെ എന്താണ് ഡേറ്റ് ഡേറ്റ് എന്നേക്കാണ്

ഓക്കെ ഓക്കെ അതിന് ഫു അതിനകത്ത് വരുന്ന ആ ഹാ ആദ്യത്തെ വരുമ്പം തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആണ് കൊടുക്കുന്നത് ആ ബാക്ക് ഫുഡ് ഒന്നും അത് കരുതേണ്ട ലഞ്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ പറയണം കൊഞ്ചോ അങ്ങനെയുള്ളതൊക്കെ താറാവിറച്ചിയോ അതൊക്കെ സ്പെഷ്യൽ ഫുഡിൽ പെടും അപ്പം അതിനകത്ത് എക്സ്ട്രാ പൈസ അത് അടയ്ക്കേണ്ടി വരുമേ പിന്നെ

ആ അവർക്ക് ഫിഷിംഗ് നടത്താമല്ലോ പിന്നെ അവനും മേ മുകളിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ടവർക്ക് ബോൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം അത്ര വലിയ ഒരു ബോട്ട് ആയിരിക്കും ഒരു ലക്ഷറീസ് ബോട്ട് ആവുമ്പം സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അതിൻറെ അകത്ത് ആ അങ്ങനെയൊക്കെ പിന്നെ അതിനകത്തുള്ള ഡാൻസ് കാര്യങ്ങൾ ഡി ജെ പാർട്ടീസ് എല്ലാം ഉണ്ട്

പുന്ന പുന്നമട കായൽ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം ആണ് അവിടെ ആ കാരണം അത് ഒത്തിരി മീൻസ് ഈ ലോക്കൽ ഉള്ളവരും അല്ലാത്തവർ ഈ കേരളം മൊത്തം കാണാനും അതിൻ്റെ സംപ്രേഷണം ഒക്കെ നടത്തുന്നുണ്ട് ടി വിയിലൊക്കെ ആയാലും മുഖ്യ അതിഥിയായിട്ട് രാഹുൽ ഗാന്ധി ഒക്കെ വന്നിട്ടുണ്ട് അതല്ല ഇന്ദിരാഗാന്ധി ഒക്കെ വന്നിട്ടുണ്ട് അത്ര ഫേമസ് ആയ ഒരു വള്ളംകളി ആണ് പുന്നമട ആ എല്ലാ വർഷം ഓണത്തിൻ്റെ സമയത്താണ് നടക്ക് നടത്തുന്നതേ ആ അത് പല ടൈപ്പ് വള്ളങ്ങൾ ഉപയോഗിച്ചാണ് നടത്തുന്നത് അതിനൊത്തിരി പ്രാക്റ്റീസ് ഒക്കെ ഉണ്ട് ചുണ്ടൻ വള്ളം വ അങ്ങനെ ഒത്തിരി വള്ളങ്ങളുണ്ട് പ്രാക്റ്റീസ് പത്ത് ഒരു വള്ളത്തിൽ തന്നെ നൂ നൂറ്റി നൂറ് നൂറ്റമ്പതോളം പേർ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അത്ര വലിയൊരു വള്ളമായിരിക്കും അവർക്ക് ട്രോഫി കൊടുക്കുന്നതായിരിക്കും ജയിക്കുന്നവർക്ക് ആ അപ്പം അതിൻ്റെ ഫിനിഷിംഗ് പോയിൻറും അയിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ തന്നെ നമുക്ക് ബണ്ട് ഏറ്റവും നീളം കൂടിയ ബണ്ട് ആണ് കേരളത്തിലോട്ട് വെച്ച് ആ ബണ്ട് കാണാം പിന്നെ പള്ളികളൊക്കെ സ് ഒത്തിരി ഉണ്ട് അവിടെ സന്ദർശിക്കാം അതുപോലെ തന്നെ നമുക്ക് ചില വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസിൻ്റെ ഭവനം സന്ദർശിക്കാനുള്ള സമയം ഒരുക്കുന്നുണ്ട് അവിടെ ഒരു അര മണിക്കൂർ സ്പെൻഡ് ചെയ്യാം അങ്ങനെ എല്ലാം ആ ആ അതുതന്നെ ട്വൻറി തൗസൻഡിൽ ഇൻക്ലൂഡഡ് ആണ് പിന്നെ നിങ്ങൾക്ക് കടൽ ഈ കായലിൽ ഇറങ്ങി നടക്കാനുള്ളൊരു സൗകര്യം സംവിധാനം ചെയ്യുന്നുണ്ട് അത് ചെളിയൊന്ന് ആ ആ ആ അത് അത് അധികം ചെളിയൊന്നുമില്ല നല്ല മീൻസ് അത് ടൂറിസം അനുവദിച്ചിട്ടുള്ള സ്ഥലമാണ് വലിയ അപകടങ്ങളൊന്നും ഇല്ല അങ്ങനെ കുട്ടികൾക്കും ഇറങ്ങി നടക്കാം ഓക്കെ പി ആ പിന്നെ അവിടെത്തന്നെ ഒരു തുരുത്തുണ്ട് അത് പാതിരാമണൽ എന്ന് പറയും അവിടെ നമുക്ക് അവിടെ പക്ഷികളൊക്കെ ഉണ്ട് അവിടെ ഇറങ്ങി നടക്കാം ഈ തുരുത്തുമ്മേൽ ഇത് ശ ശലഭങ്ങൾ ആ ഹാ ഫൈവ് തൗസൻഡ് അഡ്വാൻസ് ഓക്കെ താങ്ക് യു വെൽക്കം ഓക്കെ സീ യു